ഹലോ ഹലോ ഞാനേ ഈ ഡ്ര ഡ്രൈവിങ്ങിൻ്റെ ഡ്രൈവിങ്ങ് സ്കൂൾ അല്ലേ ഇത് ആ എൻ്റെ പേര് കാർത്തികേന്നാണ് ഞാനേ എൻ്റെ ചെറുതായിട്ട് വണ്ടിയൊക്കെ ഓടിക്കാനറിയാം അപ്പം എനിക്കൊന്ന് ലൈസൻസ് എടുക്കാൻ വേണ്ടീട്ടാണ് അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറ് എങ്ങനാണെന്നൊന്നറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഇല്ല ലേണേഴ്സില്ല ഇല്ലില്ല ലേണേഴ്സില്ല ആ ആ അത് അത് എത്ര ദിവസത്തെ ക്ലാസ്സാണ് നമുക്ക് അത് ഉള്ളത് ആ ആ ആ അത് നമുക്ക് പഠിപ്പിച്ച് പഠിപ്പിച്ച് തരുവോ ലേണേഴ്സിനുള്ളത് ആ

നമുക്കെ ഈ വണ്ടി ഓടിച്ചതിന് ശേഷം അല്ല ഈ ലേണേഴ്സ് ഇപ്പം കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കത്തുള്ളു

ഓക്കെ നമുക്കപ്പോഴെ ആ ആ

നമുക്കിതിന് എന്തൊക്കെ പേപ്പേഴ്സ് കൊണ്ട് വരേണ്ടി വരും എന്തൊക്കെ നമ്മുടെ ഐ ഡി കാർഡ് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിന് വേണ്ടീട്ട് തരേണ്ടി വരും കൊണ്ട് വരും അല്ലേ ഫോട്ടോ ഫോട്ടോ ഒരെണ്ണം മതിയോ നമുക്ക് പേയ്മെൻ്റീൻ്റെയൊക്കെ എങ്ങനാണിത്

ആ ഇതിൽ മേൽ ആ ആ നമുക്ക് എത്ര നാളിനുള്ളിലിത് ലൈസൻസൊക്കെ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും ആ നമുക്ക് ടൂ വീലറും ഫോർ വീലറും കൂടിയാണെങ്കിലോ ആ ഓക്കെ ഓക്കെ താങ്ക്സ് ഓക്കെ